ലോകം മാറിയതായി കരുതുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ച് വന്നാൽ പണ്ടത്തെ ആ ഒരു തലമുറയും ഇപ്പോഴത്തെ ആ ഒരു ജനറേഷനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കാരണം പണ്ടെന്നു പറഞ്ഞാൽ മുസ്ലിം ഹിന്ദു എല്ലാത്തിനും വേർതിരിച്ചാണ് കാണുന്നത് ഇപ്പോഴും അങ്ങനെ ഇല്ലെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോഴുമുണ്ട് പക്ഷേ അന്ന് കൂടുതൽ വലിയ വലിയ ആൾക്കാർക്കൊക്കെ ആയിരുന്നു ഇംപോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവർക്ക് സ്വന്തമായി വീടുണ്ടെങ്കിലും അതിനെ ആ വലിയ ആൾക്കാരുടെ മുന്നിൽ നിർത്തി ഭക്ഷണം കൊടുക്കുവാനോ അവർ അടുത്തു കൂടെ പോകുവാനോ അവൻ്റെ അടുത്ത കൂടെ പോകുവാനോ ലജ്ജയുണ്ടായിരുന്നൊരു സമയമായിരുന്നു അന്നത്തെ ആ സമയം ഇപ്പോഴെന്ന് പറഞ്ഞാൽ മാറി മൊത്തത്തിൽ ജനറേഷൻ ടോട്ടലി മാറി എല്ലാ എല്ലാ രീതിയിലും എല്ലാവരുടെയും സ്വഭാവത്തിലാണെങ്കിലും ഇപ്പോൾ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചതെന്നു പറഞ്ഞാൽ ലവ് മാരേജിന് ഒക്കെ എതിർപ്പായിരുന്നു ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിക്കുമ്പോൾ എല്ലാത്തിനും എതിർപ്പായിരുന്നു അപ്പോൾ അവരൊക്കെ അവനെ തല്ലാനും അതിനും ഇതിനും എന്നൊക്കെ പോകുമായിരുന്നു പക്ഷേ ഈയൊരു ജനറേഷനിൽ വന്നിട്ട് എൻ്റേർലി മാറി എന്ന് തന്നെ പറയാം ലോകം അങ്ങനെ ലോകം തമ്മിൽ ലോകം മൊത്തത്തിൽ മാറിയെന്ന് പറയാൻ പറ്റില്ല എന്നാലും ചില ചില കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ട് എന്നാണ് പറയാനുള്ളത്